ആ ഹലോ ഞാൻ വിളിച്ചത് ഡാൻസേഴ്സ് ടീച്ചറല്ലേ ആ ഹലോ ഇപ്പം ഞാൻ വിളിച്ചത് നമുക്ക് കഥകളി പഠിക്കണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തെകുറിച്ചൊക്കെ ഒന്നറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വിളിക്കുന്നത് ആ അ

അ കഥകളി ഇതു ആയിട്ട് പോയിട്ടില്ല ഡാൻസൊക്കെ നമ്മൾ കുറേശ്ശെയൊക്കെ പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ട് ഇപ്പം കഥകളി പഠിക്കണമെന്നൊരു മോഹം

കഥകളി ഒരു നമ്മൾ ഒരു എത്രമാസം കൊണ്ട് നമ്മൾ അത് പഠിക്കാൻ പറ്റും മ്മ് ആ ആ മൂന്ന് അഞ്ച് അങ്ങനെ പല ഇതാണ് അല്ലെ ഇപ്പം അതിന് നമുക്ക് പഠിച്ച് വലിയ ഇറങ്ങുമ്പത്തേക്ക് എത്ര രൂപ ഫീസാവും

അപ്പോൾ ഇത് ഈ പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സുണ്ടോ അതോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമായിട്ട് അത് എങ്ങനെയാണ് നടത്തുന്നത്

അപ്പം ഇതിൻ്റെ ഈ ആ ഇതിൻ്റെ ഈ അരങ്ങേറ്റം ഉൾപ്പെടെയുള്ള ചിലവ് കൂട്ടിയാണോ ഇതിൻ്റെ തുക ഫീസ് പറഞ്ഞേക്കുന്നത് അന്നേരം ഇപ്പം ഈ പറഞ്ഞ തുക ഒരല്പം കൂടുതൽ അല്ലേ നമുക്ക് അതിനകത്ത് ഒരു അല്പം കുറവ് വരുത്താൻ പറ്റുമോ ആ എന്നാൽ ടീച്ചർ ഒരു കാര്യം ചെയ്യ് നാളെ ഞാൻ ഫീസുവായിട്ട് വന്ന് ജോയിൻ ചെയ്തോളാം ഓക്കെ സാറവിടെ കാണുമല്ലോ ഓക്കെ ഓക്കെ ശരി ശരി ആ ഞാൻ രാവിലെ തന്നെ എത്തിയേക്കാം